നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പലചരക്ക് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് പഴയ മലയാള ഭാഷയുടെ തനിമയിൽ പറയുകയാണെങ്കിൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പലചരക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മറ്റു കടകളിൽ നിന്ന് കയറി ഇറങ്ങുന്നതിന് കഴിഞ്ഞു നല്ലത് പലചരക്ക് കടകളിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് വില കുറച്ചും വില പേശിയും നമുക്കത് കൈപ്പറ്റാവുന്നതാണ് മറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിലുപരി പലചരക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ ലഭ്യമാകുമ്പോൾ അത് വളരെയധികം കുറഞ്ഞ പൈസ പൈസയില് നമുക്ക് ലഭ്യമാകുന്നു എന്നതിലാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് മറ്റു ഹൈപ്പർ മാർക്കറ്റുകളിൽ ചെന്നുനിന്ന് വില പേശാനോ സാധനങ്ങൾ വില കുറച്ച് കിട്ടാനും നമുക്ക് സാധ്യമില്ല അതേ സമയം പലചരക്ക് കടകളിൽ നിന്ന് നമുക്ക് വില പേശാനും സാധനങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് കൈകളിൽ ലഭ്യമാക്കാനുമുള്ള ഒരു ഇതാണ് ഒരു പോംവഴിയാണ് നമുക്ക് പലചരക്ക് കടകളെക്കുറിച്ച് വിവരിക്കാൻ കഴിയുന്നത് പലചരക്ക് കടകളില് നിന്ന് ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്നു